ആ അതേ അല്ലോ ആ ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ ഓക്കെ സാറ് സോളോ ട്രിപ്പാണോ അതോ എങ്ങനെയാണ് ഗ്രൂപ്പ് ട്രിപ്പാണോ പ്ലാൻ ചെയ്യുന്നത് ആ ഗോവയിലേക്കോ ആ ഡേറ്റും സെലക്ട് ചെയ്തിട്ടുണ്ടോ ഏത് ഡേറ്റിലേക്കാണ് ചേച്ചി പോവാൻ താല്പര്യപ്പെടുന്നത് അനച്ചലുണ്ടോ ഓക്കെ എത്ര ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ആ ആ ഡേയ്സോ എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫിക്സ് ചെയ്തിട്ട് ഉണ്ടോ ആ ബൈ ഫ്ലൈറ്റാണോ ട്രെയിനാണോ ആ ട്രെയിനിനകത്ത് ആ നിങ്ങൾ പറഞ്ഞ ഡേറ്റിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആക്കാം ഓക്കെ സാർ സാറിന് ട്രാവലിൻ്റെ ഗൈഡിനെ ആവശ്യം ഉണ്ടോ വേണ്ട ആ ഓക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ലൈസൻസ് കാര്യങ്ങൾ ഒക്കെ ഉള്ളത് അല്ലേ ആ ഓക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ബൈക്ക്സ് ഒക്കെ അവൈലബിളാണ് നമ്മൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് ഒക്കെ ചാർട്ട് ചെയ്ത് തരാം ഡെസ്റ്റിനേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫോണിലേക്ക് നമ്മൾ മെയില് ചെയ്തേക്കാം അത് അനുസരിച്ച് നമുക്ക് പോയാൽ മതി നമ്മൾ ബൈക്ക് അവൈലബിൾ ആക്കി തരാം നമ്മൾ ഈ ഒരു പാക്കേജിലേക്ക് ഇൻക്ലൂഡഡ് ആണ് എല്ലാം കൂടെ അക്കോമഡേഷൻ അവിടുത്തെ നമ്മളെ ബൈക്ക് നമ്മൾ റെൻറ്റിന് എടുത്തത് എല്ലാം ഓക്കെ ആണോ ആ നമ്മൾ എത്ര ദിവസത്തെ അനുസരിച്ചാണ് ആണ് നമ്മൾ പാക്കേജസ് വരുന്നത് ഓ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അത് ഇപ്പോൾ അഞ്ച് ദിവസത്തെ ഉണ്ട് നമുക്ക് ടെൻ ഡേയ്സിലെ പാക്കേജസ് ഉണ്ട് അത് എത്ര ആണ് സെലക്ട് ചെയ്ത് ചാർട്ട് ചെയ്ത് അയച്ചു തരാം കാരണം അത് കുറച്ച് പ്ലയിസസ് നമുക്ക് കൂടുതലായിരിക്കും നിങ്ങൾ ആ ഓക്കെ ഓക്കെ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം എന്നാൽ ചാർട്ട് ചെയ്ത് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം ഓക്കെ സാർ താങ്ക് യു